ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പ്രധാന ആയുധമായി മാറിയിട്ടുണ്ട് മറ്റ് പ്രസക്തി അതിനുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇന്നത്തെ കാലം ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നോക്കുമ്പോൾ ഏത് വാർത്താ മാധ്യമങ്ങളെടുത്ത് നോക്കിയാലും നമുക്ക് ഒരു ശാന്തിയും സമാധാനവും കിട്ടുന്ന വാർത്തയില്ല എല്ലാം അക്രമത്തിൻ്റേയും കൊലപാതകത്തിൻ്റേയും മയക്കുമരുന്ന് മാഫിയയുടെയും പിന്നെ രാഷ്ട്രീയ സാമ്പത്തികമായ അവബോധം നൽകുന്ന വാർത്തകളും അതിൽ കൂടുതല് ഒന്നും തന്നെയില്ല പക്ഷേ നമുക്ക് വാർത്തകളിലോട്ട് നോക്കാം ഒന്ന് ടി വി ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ പേപ്പറെടുത്ത് നോക്കുമ്പോഴോ ഒരു നല്ലൊരു വാർത്ത നമുക്ക് കാണാനില്ല ഇന്നത്തെ ലോകം ആ ഒരു ആ ഒരു രീതിയിലോട്ട് മാറി മാറിക്കൊണ്ടിരിക്കുവാണ് മക്കള് ആ മാതാപിതാക്കളെ കൊല്ലുന്നു അല്ലെങ്കിൽ സഹോദരങ്ങൾ സ്വന്തം കൂടപിറപ്പുകളെ തന്നെ ഇല്ലാതാക്കുന്നു നശിപ്പിക്കുന്നു ല മയക്കുമരുന്ന് മയക്കുമരുന്ന് എന്ന് വെച്ചാൽ ഒരു മാഫിയ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് സ്കൂൾ കുട്ടികളെയും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികള് അത് പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഒന്നും ഇല്ല ഓരോരുത്തര് സ്കൂൾ പടി സ്കൂൾ പടിക്കൽ കടകളിട്ടും അല്ലാതെ മിഠായികളായിട്ട് മുതിർന്ന കുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ കുഞ്ഞു കുട്ടികൾ വരെ ഇതിനകത്ത് അടിമ ആയിക്കൊണ്ടിരിക്കണത് അവരതറിയുന്നില്ല അവരിത് മയക്കുമരുന്നാണോ കഴിക്കുന്നത് എന്നുള്ളത് അവർക്കതറിയാൻ പാടില്ല മിട്ടായിയാണല്ലോ എന്നോർത്ത് അവര് വാങ്ങിച്ച് കഴിക്കുന്നു പിൻ്റ് പിറ്റേ ദിവസം അവർക്കത് കിട്ടാൻ വേണ്ടി അവര് പോയി ചോദിക്കും മിട്ടായി തരാവോ അങ്ങനെ അവരും പതുക്കെ പതുക്കെ ഇതിന് അടിമായിക്കൊണ്ടിരിക്കുവാണ് നമ്മള് ഇന്നത്തെ യുവാക്കള് യുവാക്കള് മൊത്തവും ഭയങ്കര അക്രമാശക്തരായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ആ ഒരു പേടി പേടി എന്ന് പറയുന്നത് അവർക്കില്ല അവർടെ അവര് അവർക്കെന്തും ചെയ്യാം അവരെന്തോ ആണ് എന്നൊള്ളൊരു ഒരു തോന്നലാണ് അവർക്ക് അത് കാരണം ഇന്നത്തെ യുവാക്കള് എന്തൊരു അക്രമത്തിൻ്റേം പുറകെ യുവാക്കളാണ് സ്കൂൾ കുട്ടികള് പല വാർത്താ മാധ്യങ്ങളും നമുക്കുണ്ട് പ്രിൻസിപ്പാളിനെ ഫോൺ വാങ്ങിച്ച് വെച്ചതിന് പ്രിൻസിപ്പാളിനെ നോട് കയർത്തുകയറുന്ന കുട്ടികള് ഈവൻ അധ്യാപകർക്കാണേലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അധ്യാപകരൊന്ന് മിണ്ടിപ്പോയാൽ പിന്നെ അയ്യോ അത് നമ്മുടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് നല്ലവരാന്നും പറഞ്ഞുകൊണ്ട് പാരൻസ് പിള്ളാരുടെ സപ്പോർട്ടിനിറങ്ങും അത് കാരണം ഇപ്പം ഒന്നും പാടില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ മാധ്യമങ്ങളിലോട്ട് നോക്കിയാൽ നമുക്കിതെല്ലാം കാണാൻ പറ്റും യൂട്യൂബ് പിള്ളേർക്ക് ഇതിനൊക്കെ ആക്രമത്തിന് ഇതിനെല്ലാം ഇത് ഇവിടന്ന് ഇവർക്ക് സോഴ്സ് കിട്ടുന്നത് ഇവർക്ക് പരിശീലനം കിട്ടുന്നത് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഇവർക്ക് അതിനുള്ള അവരെ അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള അത് ഓരോ ഉപകരണങ്ങളെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇത് അവർക്ക് കിട്ടുന്നു പരിശീലനം നേടുന്നു എന്നിട്ട് അവര് ഈ അക്രമത്തിനെല്ലാം ഇത് മുന്നോട്ട് ഇറങ്ങുന്നു മിക്ക കോളേജുകളിലും നല്ല എജ്യു കുഞ്ഞ് ചെറിയ ചെറുക്കൻ പിള്ളേര് എന്തോരും പേരാ അങ്ങോടും ഇങ്ങോടും കൊല്ലുന്നതും അടികൂടുവൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ദയനീയമായ ഒരവസ്ഥ നമുക്ക് നമുക്ക് തോന്നും നമ്മുടെ ലോകത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തെക്കുറിച്ച് തന്നെ